ഇക്കാലത്ത് വിദ്യാഭ്യാസം എന്നു പറയുന്ന കാര്യമില്ലെങ്കിൽ നമുക്കൊരു ഒരു ഒരു ജോലിക്കോ അല്ലെങ്കിൽ എവിടേയും എത്താൻ എത്തിപ്പെടാൻ പറ്റില്ല നമുക്ക് എന്ത് ജോലി എന്ത് ജോലിക്ക് പോകുവാണെങ്കിലും വിദ്യാഭ്യാസം മസ്റ്റാണ് ഇപ്പോൾ ഒരു സെയിൽസ്മാനായിട്ട് പോവുകയാണെങ്കിൽ തന്നെ അവിടെ പ്ലസ് ടു വിദ്യാഭ്യാസം വേണം ഇപ്പം ഡോക്ടറാവണമെങ്കിൽത്തന്നെ ഡോക്ടറാവണമെങ്കിൽ സയൻസ് എടുത്തിട്ട് അതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളും പഠിക്കണം ഇനിയിപ്പോൾ എങ്ങനെയാണ് ബോഡിയിലുള്ള കാര്യങ്ങൾ എല്ലാം അതേപോലെ എല്ലാ എല്ലാ കാര്യങ്ങൾക്കും അതാത് കോഴ്സുകളും സംഭവങ്ങളും ഉണ്ട് അതൊക്കെ ഇല്ലാണ്ടൊരു ജോലിക്ക് പോവാനൊന്നും പറ്റത്തില്ല ഇപ്പം സോഫ്ട്വെയർ എഞ്ചിനീയറാവണമെങ്കിൽ സോഫ്റ്റ്വെയറിനെപ്പറ്റി കമ്പ്യൂട്ടറിനെപ്പറ്റി ഓരോ കാര്യങ്ങള് പഠിക്കണം വക്കീലാവണെങ്കിൽ കേസുകളെപ്പറ്റി പഠിക്കണം നിയമങ്ങളെപ്പറ്റി പഠിക്കണം വിദ്യാഭ്യാസമില്ലാതെ നമുക്കെവിടേയും എത്തിപ്പെടാൻ പറ്റില്ല വിദ്യാഭ്യാസമില്ലാത്ത ആൾക്കാര് കൂലിപ്പണി അങ്ങനെയുള്ള പണികളിലാണ് ഇപ്പം പോകുന്നത്